ഞാൻ കാണുന്ന കായിക മാച്ചുകൾ എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഞാൻ കാണുന്നത് ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ അടുത്തിടെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എൽ ആണ് ഐ പി എല്ലില് എൻറ്റെ ബെസ്റ്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാ മുംബൈ ഇന്ത്യൻസ് ആണ് പക്ഷേ മുംബൈ ഇന്ത്യൻസ്ന് അങ്ങനെ എന്താ പറയാ കയറാനുള്ള ഒരു ചാൻസ് കാര്യങ്ങളുണ്ടായിരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് ആണ് അപ്പോൾ അത് ധോണിയുടെ ടീമാണ് അപ്പോൾ നല്ലൊരു ഇത് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വിന്നർ ആയത് ധോണീൻറ്റെ ടീമാണ് അപ്പം അത് കാണാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതലായിട്ടും ടി വിയിലും ടി വിയിലാണ് ഞാൻ കൂടുതലായിട്ടും ക്രിക്കറ്റ് മാച്ച് കാണുന്നത് പിന്നെ ബാക്കി ഉള്ള എന്ന് പറഞ്ഞ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണുന്നത് കൂടുതലായിട്ടും ഫോണിലാണ് അപ്പം ടി വില് ചില സമയത്തു അത് എന്താ പറയാ അത് സംപ്രേക്ഷണം ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടും ഞാൻ ഞാൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അതായത് ഫോണിലോ ലാപ്ടോപ്പിലോ അങ്ങനെ എന്തെലും ഒക്കെ കാണാനെൽ ചെയ്യാറ് കൂടുതലായിട്ട് ഞാൻ ഒറ്റക്ക് ഇരുന്നാണ് കാണാറുള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർ എല്ലാവരും ഓരോ വഴിക്കും ഓരോ ജോലിയിലും ജോലിത്തിരക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഞാൻ പൊതുവേ കാണാറുള്ളത്